പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പതിനാറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനാല്